ഹലോ ബ്രൂക് ഷോർ റെസ്റ്റോറൻറ്റ് അല്ലേ ഞാൻ ഇവിടെ ചമ്പക്കുളത്തു നിന്നാണ് വിളിക്കുന്നതേ ഞങ്ങൾക്കു ഇന്ന് ഉച്ചക്കു ഒരു അഞ്ച് പേർക്കുള്ള ലഞ്ച് വേണമായിരുന്നു ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മുക്കാൽ ആയി എങ്കിലും ഞങ്ങൾക്ക് ഒരു മണിക്കത്തേക്കൊന്നു എത്തിക്കാനായിട്ടു നോക്കണം ലഞ്ച് നോൺ വെജ് മതിയേ അഞ്ച് പേർക്ക് നോൺ വെജ് മീൽസ് ആണ് വേണ്ടത് അപ്പം സ്ഥലം അറിയാമോ ഞാൻ ചമ്പകുളത്തിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേരു ജെസ്സി എന്നാണ് ചെട്ടിയാട് വടത്തേമുച്ചേരി അപ്പം നമ്മളിങ്ങോട്ടു വരുമ്പോഴത്തേക്ക് എൻ്റെ വരുന്ന വഴി നിങ്ങക്കറിയാമോ നമ്മുടെ ചമ്പക്കുളത്ത് മാങ്കൊമ്പിൽ നിന്ന് ചമ്പക്കുളം റോഡിൽ നൂറ്റിപ്പത്ത് ജംഗ്ഷനിൽ നിന്ന് അകത്തേക്കു കയറി ആ വഴിയേ വന്നേച്ചാൽ മതി അപ്പം അവിടെ സെൻറ്റ് ജോർജ് ജംഗ്ഷനിൽ ആ മുന്നേ ഇരിക്കുന്ന വീട്ടിലാണ് അപ്പം ഞങ്ങൾക്ക് അഞ്ച് പേർക്കുള്ള മീൽസ് എത്തിക്കാനായിട്ട്

അതുകൊണ്ട് ആ സമയത്തിനു എത്തിക്കാനായിട്ടു താല്പര്യം കാണിക്കണം അഞ്ച് പേർക്കുള്ള നോൺ വെജ് ഫുഡ് മതിയേ ഓക്കെ